അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒൻപത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്